ഇപ്പോൾ ചെടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കറുത്ത ഒരു രീതിയിൽ ഉള്ള മണ്ണും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വളക്കൂറുള്ള മണ്ണ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറുത്ത രീതിയിലുള്ള മണ്ണാണ് ചില സ്ഥലങ്ങളിൽ ഒക്കെ ചെമ്മണ്ണ് അങ്ങനെയൊക്കെ പറയുക അതു നമ്മൾ അധികം യൂസ് ചെയ്താലും വലിയ ഗുണവും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം അതിൽ വളം ഇല്ലാത്ത ടൈപ്പ് മണ്ണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഈ കറുത്ത മണ്ണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുവാണേൽ കുറച്ചും കൂടി ബെറ്ററാണ് നമുക്ക് ചെടി നല്ല രീതിയിൽ ഇപ്പോൾ എന്തു ചെടിയാണെങ്കിലും ചെടിയല്ല നമുക്ക് ഇനി പച്ചക്കറി വളർത്താനാണെങ്കിലും ഇഞ്ചിക്കൃഷി വാഴക്കൃഷി ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് കറുത്ത മണ്ണാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഉള്ളത് അപ്പോൾ കുറച്ചും കൂടി നല്ലത് നമുക്ക് ഈ കറുത്ത മണ്ണാണ് അതിനാണ് കുറച്ചും കൂടി എന്താ പറയുക നമുക്ക് ഇതൊക്കെ ഉള്ളത് അതായത് അതിൻ്റെ വളവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഈ കറുത്ത മണ്ണിൽ തന്നെയാണ് ഇതു കൂടുതലായിട്ടും കാണുന്നത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഈ കറുത്ത മണ്ണ് കൂടുതലായിട്ടും കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം